ഇപ്പം മൃഗങ്ങളെ പരിപാലിക്കാൻ പ്രകൃതിദത്തവും ജൈവപരാവുമായിട്ടുള്ള മാർഗ്ഗങ്ങളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവർക്കീ പുറമേ നിന്നുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാണ്ട് നമ്മുടെ വീടിനടുത്തു തന്നെ പുല്ലുകളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ

നമുക്ക് നല്ല രീതിയിലുള്ള പാലുത്പാദനം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നല്ല രീതിയിൽ മൃഗത്തെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെയാണ് പുറമേ നിന്നുള്ള ഫുഡ് കാര്യങ്ങൾ ഇപ്പോൾ പട്ടിയെ വളർത്തുകയാണെങ്കിൽ പെഡിഗ്രി കാര്യങ്ങളൊക്കെ പുറമേ നിന്ന് മേടിച്ച് കൊടുക്കും അപ്പോൾ അതൊന്നും മേടിച്ച് കൊടുക്കാണ്ട് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൊണ്ടും ലാഭമാണ് അല്ലാത്ത രീതിയിൽ ഇപ്പോൾ അസുഖങ്ങൾ വരാണ്ടിരിക്കാനും അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല രീതിയിൽ ആൾക്കാർ പശുക്കളെയാണെങ്കിലും പട്ടികളെയാണെങ്കിലും മൃഗങ്ങളെ പല രീതിയിൽ എന്താ പറയുക ഇപ്പം നോക്കുന്നുണ്ട് അപ്പം നമ്മൾക്കിപ്പം കൂടുതലായിട്ട് നമ്മൾ അതായത് ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരുടെ അതായത് പണ്ട് നമ്മുടെ തലമുറ പഴയ തലമുറ ആൾക്കാരുടെ ഒരഭിപ്രായം വെച്ചിട്ടാണ് നമ്മൾ ഓരോ മൃഗങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഉപദേശം നമ്മൾക്കിഷ്ടം പോലെ ലഭിച്ചിട്ടുണ്ട്